കോവിഡ് വന്ന സമയത്താണ് ഏറ്റവും വലിയൊരു മാറ്റം ഉണ്ടായത് വിദ്യാഭ്യാസ വിദ്യ മാറ്റങ്ങൾ സാങ്കേതിക വിദ്യ മാറ്റങ്ങളിലൊക്കെ വലുതായിട്ടൊരു മാറ്റം വന്നത് കോവിഡ് വന്ന സമയത്താണ് കാരണം കോവിഡ് വന്നപ്പം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എല്ലാവരും ഒരു നാലു ചുവരിനുള്ളിൽ ഒറ്റപെട്ട സാഹചര്യങ്ങളൊക്കെ ആയ സമയത്താണ് സാങ്കേതിക തലത്തിൽ ഭയങ്കര ഡ്രാസ്റ്റിക് ചെയിഞ്ചസ് വന്നത് നമ്മൾ നമ്മുടെ ഫോണുകളുടെ ഉപയോഗം വളരെ അധികം കൂടി നെറ്റ് വൈഫൈ ഇൻ്റർനെറ്റ് കണക്ഷൻ ലാപ് ടോപ്സിൻ്റെ സെയിലുകൾ അങ്ങനെ മറ്റ് സാങ്കേതികമായി ഉപയോഗിക്കുന്ന എല്ലാ തരം ഉപകരണങ്ങളിലും അത് വിൽക്കുന്ന രീതിയിലും എല്ലാം വളരെ വലിയൊരു മാറ്റമാണ് ഉണ്ടായത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിയെന്ന് ചോദിച്ചാൽ വളരെ പ്രൊഡാക്ടീവായിരുന്ന ദൈനംദിന കാര്യങ്ങൾ വളരെ കറക്റ്റായി ചിട്ടയോടെ ചെയ്തിരുന്ന ആൾക്കാരുടെ ജീവിത ശൈലികളെല്ലാം ഒറ്റയടിക്ക് പോയെന്ന് പറയാം ചിലവരുടെ കാര്യത്തിൽ അതായത് ഒരു നൂറിലൊരു തൊണ്ണൂറു അല്ലെങ്കിൽ ഒരു എൺപത് എൺപത്തഞ്ചു ശതമാനം വരെയും ആൾക്കാരിലെ ചിട്ടാ രീതികളെല്ലാം മാറി നമ്മൾ നേരത്തെ അത് ഫോണിനല്ലെങ്കിൽ മറ്റ് സാങ്കേതിക ഉപകരണങ്ങളുടെ ഉപയോഗം വന്നതോടെ നമ്മുടെ സ്പീഡ് കുറഞ്ഞു നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ വേഗത കുറഞ്ഞു എല്ലാം പതുക്കെ പതുക്കെ എന്ന രീതിക്കായി ഇപ്പം ക്ലാസ് ക്ലാസസ്സൊക്കെ നമ്മൾ കോവിഡായപ്പം ഒൺലൈനിലായിരുന്ന സമയത്ത് നമ്മ ടീച്ചേഴ്സിനാണെങ്കിൽ അദ്ധ്യാപകർക്കും അദ്ധ്യാപകർക്ക് ക്ലാസ്സെടുക്കുകയാണെങ്കിൽ അവരുടേതായ സിസ്റ്റംസ് വേണം അവർക്ക് ലാപ് ടോപ്സ് വേണ്ടി വന്നു സ്മാർട്ട് ബോഡുകൾ വേണ്ടി വന്നു സ്മാർട്ട് പെന്നുകൾ വേണ്ടി വന്നു അതായത് നമ്മുടെ കൈയ്യിലുള്ള നമ്മുടെ പൈസക്ക് ഭയങ്കര ചിലവായിരുന്നു എൻ നമ്മൾ അതെല്ലാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്തോറും അത് നമ്മുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങളും വരുന്നു കാര്യം നമ്മുടെ ഉപയോഗങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് നല്ലതെന്തിരിക്കുകയാണെങ്കിൽ നമ്മൾക്കതു ഭയങ്കര കൺവീനിയൻ്റായിരുന്നു നമ്മൾ വീട്ടിലിരുന്നു കൊണ്ടും ഒരു മുടക്കവും കൂടാതെ ക്ലാസ്സുകളും ജോലികളും എല്ലാം ചെയ്യാനും അതെല്ലാം മനസ്സിലാക്കാനും കഴിയുന്ന സാഹചര്യമായിരുന്നെങ്കിൽ ദോഷങ്ങളാണെങ്കിലും ഏറെക്കുറേ ഒരു ഇപ്പോൾ സ്റ്റുഡൻ്റൊക്കെ ആണെങ്കിൽ വിദ്യാർത്ഥിയാണെങ്കിൽ ക്ലാസ്സൊക്കെ പത്തു മണിക്കൂറോളം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫോൺ സ്ക്രീൻ ലൈറ്റ് കണ്ട് തലവേദനയും മൈഗ്രൈയിനും കണ്ണിന് ബുദ്ധിമുട്ടും സ്പെക്സ് വെച്ചവരുമായിട്ട് എത്ര പേരാണ് അങ്ങനത്തെ ബുദ്ധുമുട്ടുകളുണ്ട് പോരാതെ മ് മടി നമ്മുടെ കൂടപ്പിറപ്പെന്ന രീതിയിൽ വളർന്നു വന്നു സാങ്കേതിക മാറ്റങ്ങൾ വന്നതോടെ പിന്നെ നമ്മൾ ഇങ്ങനത്തൊരു സിറ്റുവേഷൻ സാഹചര്യം വന്നതുകൊണ്ടു തന്നെ കോവിഡ് പോലൊരു സാഹചര്യം വന്നപ്പോൾ